ഇടുക്കീ ഇടുക്കി ജില്ലയിൽ കുട്ടിക്കാനം പ്രദേശത്ത് ബിസിനസ്സ് വ്യവസായത്തേപ്പറ്റി പറയാനാണ് ഞാനാഗ്രഹിക്കുന്നത് അതിലൊന്നാമത്തെ ബിസിനസ്സ് എന്ന് പറയുന്നതാണ് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ ഭക്ഷണ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് കുട്ടിക്കാനത്തു തന്നെ അത് മാത്രമല്ല വേറെയെന്നു പറയുമ്പോഴത്തേന് നമ്മുടെ തേയിലത്തോട്ടങ്ങൾ തേയിലയുമായി തേയിലയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഒരു പ്രദേശമാണ് കുട്ടിക്കാനം കാരണം ഹൈ റേഞ്ചിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ്സ് ബിസിനസ്സ് ഏറ്റവും കൂടുതൽ വളരുന്നതെന്ന് പറയുന്നത് തേയില തേയിലത്തോട്ടങ്ങൾ തേയില തോപ്പുകൾ അങ്ങനെ തേയില തേയിലപ്പൊടി തേയില കൊണ്ടുണ്ടാക്കിയ ഒത്തിരി കാര്യങ്ങളാണ് കുട്ടിക്കാനം പ്രദേശത്ത് ഏകദേശം വരുന്നത് പിന്നെ കുട്ടിക്കാനത്ത് മാത്രമല്ല ഇടുക്കി ജില്ലയിലോട്ടിറങ്ങുമ്പോഴും കൂടുതലും കണ്ടു വരുന്നത് ബിസിനസ്സ് ഐഡിയയെന്നു പറയുമ്പം ഒത്തിരി ബിസിനസ്സുണ്ട് ചെറുകടികൾ തൊട്ട് വലിയ വലിയ ജിമ്മ് ജിമ്മ് ടെക്സ്റ്റൈൽസ് അങ്ങനെ ഒത്തിരി ബിസിനസ്സ് ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ഇടുക്കിയിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നതെന്ന് പറയുമ്പം ധാരാളം ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തുണിക്കടകൾ അങ്ങനെ ഒത്തിരി ഉൾപ്പെടുന്നതാണ് ഇടുക്കി ജില്ലയെന്നു പറയുന്നത് പിന്നെയെന്ന് പറയുമ്പോഴത്തേന് ഹൈ റേ ഹൈ റേഞ്ചിലോട്ട് വരുമ്പോഴത്തേന് വേറെ അതിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നതെന്ന് പറയുമ്പോഴത്തേന് തേയില തോട്ടങ്ങൾ തന്നെയാണ് തേയിലയിൽ നിന്ന് ഉൽപ്പന്നപ്പെടുന്നു ചെടികൾ ചെടിയിൽ നിന്നുൽപ്പന്ന ഉൾപ്പെടുന്ന തേയില ചായപ്പൊടി കാപ്പിപ്പൊടി അങ്ങനെ ഒത്തിരി വ്യവസ്ഥതകൾ ഉൾപ്പെടുന്നു ഒരു ബിസിനസ്സ് പരമായ ബിസിനസ്സ് ബിസിനസ്സ് ഇടുക്കിയിലെ ബിസിനസ്സെന്നു പറയുമ്പോൾ ഒത്തിരി ഇതു മാത്രമല്ല ഒത്തിരി കാര്യങ്ങളുൾപ്പെടുന്നതാണ് ഇപ്പോൾ ഇതിലൊന്ന് ഞാൻ പറയുകയാണ് റെസ്റ്റോറെൻറ്റുകളെന്ന് പറയുകയാണ് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ഞാൻ പറഞ്ഞ പോലെത്തന്നെ സ്റ്റുഡൻസ് മെനു അതു പോലെ തന്നെ ടൗൺ ബേക്കറിയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ സ്ട്രാറ്റജീസ് അങ്ങനെ ഒത്തിരി സ്ട്രാറ്റജീസ് ഉൾപ്പെടുന്നതാണ് ടൗൺ ബേക്കറി പിന്നെ വരുന്നത് സ്റ്റുഡൻറ്സ് കാട്ടെന്നു പറയുന്ന ഒരു സംഭവമുണ്ട് അതു മാത്രമല്ല ഇപ്പം വളഞ്ഞെങ്ങാനും ഭാഗത്തോട്ട് പോകുമ്പോഴത്തേന് ഒത്തിരി ഒത്തിരി സഞ്ചാരികൾ വരുന്നതായതു കൊണ്ടു തന്നെ അതിനടുത്ത് ബജ്ജിക്കടകൾ ബജ്ജിക്കടകൾ അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ഒട്ടേറെ കടകൾ വന്ന് സഞ്ചാരികളെ ആകർഷിക്കുകയും സഞ്ചാരികളെ ആകർഷിക്കുകയും അവ അതും ഒരു ബിസിനസ്സ് ഐഡിയയാണ് കാരണം വരുന്ന ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും വരുന്ന ഈ തണുപ്പിന് നല്ല ചൂട് ചായയും ചൂട് ബജ്ജിയുമൊക്കെ കൊടുത്ത് ആൾക്കാരെ സാധീനിച്ച് അവരെ ബിസിനസ്സ് ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തുക എന്നതാണ് അവരുടെ ഏകദേശം പിന്നെ മുകളിലേക്ക് വരുമ്പോൾ വേറെ കുട്ടിക്കാന പ്രദേശത്ത് വേറെയെന്നു പറയുന്നത് വേറെയെന്ന് പറയുമ്പോൾ കുട്ടിക്കാനം പ്രദേശത്ത് വേറെയെന്ന് പറയുമ്പോൾ വരുന്നതാണ് ഇപ്പോൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ കുട്ടിക്കാനം പ്രദേശത്ത് കാലഘട്ടത്തിൽ കുട്ടിക്കാനം പ്രദേശത്ത് വരുന്ന പ്രധാന കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേനും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ